ഹലോ ഹലോ ആ ഇത് ബ്രോക്കർ അല്ലായിരുന്നോ ആ എനിക്കേ കുറച്ച് വീട് സ്ഥലം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും സ്ഥലമോ വീടായിട്ട് കൊടുക്കാനുണ്ടോ നമുക്ക് ഒരു ഇരുപത് സെന്റിൻ്റടുത്ത് മതി വീടും സ്ഥലവും മൊത്തത്തിൽ ഒരു ഇരുപത് സെന്റിൽ മതി

ആ ഓക്കെ അപ്പോൾ വീട് സ്ഥലവും എങ്ങനെയാണ് വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി അറുനൂറ്റമ്പതാണോ ആ ഓക്കെ അപ്പോൾ അമ്പതാണ് അവർ ചോദിക്കുന്നത് എങ്ങനെ മെയിൻ റോഡിന് സൈഡ് തന്നെ എവിടെയാണ് അത് കറക്റ്റ് എവിടെയാണ് അവിടെയാണല്ലേ അത് റേറ്റ് കുറച്ച് കൂടുതലല്ലേ നമുക്കെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവോ അതിനകത്ത് നമുക്ക് ഒരു ഫോട്ടീൻ ലാക്സ് ഒക്കെ മതിയാവും ഒരു നാൽപ്പത് ലക്ഷമൊക്കെ അതിന്റെ ഉള്ളിൽ മതി ആ ഓക്കെ ഓവർ ടൗൺ ഏരിയയിലേക്കല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും പ്രശ്നം ഒന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി ആ എ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ ആ ആ

ആ അത് നമുക്ക് അത്രയും സ്ഥലം ആ ഓക്കെ നമുക്കയിനോട് ചേർന്ന് തന്നെ കുറച്ചുകൂടെ കൂട്ടി എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ അപ്പോൾ അല്ല അവർ അവിടെ ഉള്ളവരെങ്ങാനും കൂടുതൽ കൊടുക്കാനുണ്ടാവുമോ വരുന്നുണ്ടല്ലേ ആ ഓക്കെ എന്തായാലും നിങ്ങൾ ഒന്ന് നോക്കി നോക്കൂ നമുക്ക് പറ്റിയത് പോലെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ആ ആ ഓക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ ഓക്കെ താങ്ക് യൂ എന്നാൽ നോക്കിയിട്ട് വിളിക്ക് കേട്ടോ